നമ്മൾ മെഴുകുതിരി വാങ്ങിച്ച് മെഴുകുതിരി ഉണ്ടാക്കി നമ്മൾ മരണത്തിനും അതുപോലെ പള്ളിയിലെ ആവശ്യത്തിനു വേണ്ടിയിട്ടും നമ്മൾ അത് പിന്നെ ചെയ്യുന്നുണ്ട് പിന്നെ കൊന്തകൾ വിശ്വാസത്തിൻ്റെ ഇതായിട്ട് നമ്മൾ കൊന്തകൾ ആൾക്കാർക്ക് കൊടുത്ത് വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ മതാചാരം പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ജീവിതത്തിൻ്റെ ഓരോ കച്ചവട കാര്യങ്ങളല്ലേ നമ്മുടെ മതപരമായ കാര്യം ആചാരങ്ങൾക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇതും ആയിട്ടാണ് എന്നാണ് നമ്മൾ മെഴുകുതിരി പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ പിന്നെ വിശ്വാസത്തിന് നമ്മൾ കാണുന്ന സാധനങ്ങൾ വിറ്റുന്ന വിൽക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കൊന്തകൾ ശരിയാക്കിയും നമ്മൾ കാര്യങ്ങളൊക്ക ചെയ്തു മറ്റുള്ളവരുടെ അടുത്ത് ഒരു മാതൃകയായി ക്രിസ്താനികൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കണം എന്നൊക്ക നമ്മൾ ഇതിനകത്ത് വിചാരിക്കുന്നുണ്ട് പിന്നെ കച്ചവട സാധനകളെന്നു പറയുമ്പം മറ്റു സാധനങ്ങളെ നമ്മൾ ഇതിന് ചെറുകിട വ്യവസായങ്ങളായിട്ടു നമ്മൾ മറ്റുള്ളവർക്ക് ചവിട്ടികൾ നമ്മുട പള്ളിയിൽ ഇടാനും മറ്റു സാധനങ്ങളുമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൊന്തകൾ നല്ല രീതിയിലും ചെറിയ രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് മെഴുകുതിരി ആയാലും പല രീതിയിലും വലിയ മെഴുകുതിരികളും ചെറിയ മെഴുകുതിരികളുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നമ്മുടേ പള്ളികളിലായാലും എല്ലാം നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്

നമ്മുടെ മെഴുകുതിരിയൊക്കെ ആയാലും പിന്നെ നമ്മൾ നമ്മുടെ ക്രിസ്തിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊന്തകളൊക്കെ ഒരുപാട് മറ്റുള്ളവർക്കും അത് പ്രയോജനപ്രദമാകാൻ വേണ്ടി മറ്റുള്ളവർക്ക് വിശ്വാസത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മെഴുകുതിരി ആയാലും പല രീതിയിൽ നല്ല രീതിയിൽ ഗ്ലാസ്സിന് അകത്ത് നമ്മൾ അതും സാധാ മെഴുക് തിരികളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളെന്നു പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിശ്വാസപരമായിട്ട് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാം ഇതൊക്കെ നമ്മൾ ചെറുകിട വ്യവസായ രീതികളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മെഴുകുതിരി മെഴുകുതിരി കാലുണ്ടാക്കാനും മെഴുകുതിരി മറ്റ് പള്ളികൾക്ക് മറ്റു പള്ളികളിലേക്ക് കൊടുക്കാനും അല്ലാതെ നമ്മുട ആവശ്യങ്ങൾക്ക് നമ്മൾ വീടുകളിൽ ആയാലും നമ്മൾ കൊണ്ടു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൊന്തകളായാലും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് നമ്മൾ കൊന്തകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുട വിശ്വാസം മതപരമായിട്ട് നമ്മൾ ചെറിയ ചെറിയ ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ചെല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത് മതപരമായിട്ട് നമ്മുടെ പ്രദേശത്ത് മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പ്രവർത്തനത്തിൻ്റെ വിശ്വാസത്തിലും ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മൾ സംഭാവനകൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള രീതിയിലും നമ്മൾ സംഭാവനകൾ ചെയ്യുന്നുണ്ട് പിന്നെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മതപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചെറിയ ചെറിയ കച്ചവടങ്ങളായാലും കാര്യങ്ങളും ഇതല്ലാതെ തന്നെ മറ്റുള്ള ഓരോ പ്രവർത്തനത്തിനും നമ്മൾ നമ്മളെകൊണ്ട് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മെഴുകുതിരി ആയാലും കൊന്ത ആയാലുമൊക്കെ ചെയ്തു നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുട പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊന്തയൊക്കെ എല്ലാം ചെറിയ രീതിയിൽ ആയാലും നല്ല രീതിയിലുള്ള കൊന്തകളും അതുപോലെ തന്നെ മെഴുകുതിരി ആയാലും നമ്മൾ കാര്യങ്ങൾ ചെയ്തു നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിശ്വാസമായ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് മെഴുകുതിരി ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ അത് മറ്റുള്ളവർക്ക് വീടുകളിൽ ആയാലും പള്ളികളിൽ ആയാലും നമ്മൾ കൊണ്ട് കൊടുക്കാനുമൊക്കെ നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയ വ്യവസായമായ രീതിയിലാണ് നമ്മൾ മെഴുകുതിരി ആയാലും കൊന്ത ആയാലും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്കും സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ കുടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകൾ പള്ളികളിൽ ആയാലും വീടുകളിൽ ആയാലും കൊണ്ടുകൊടുക്കാനുമൊക്കെ നമ്മൾ താൽപര്യപ്പെടുന്നു നമ്മുടെ ഒരോ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ നമ്മൾക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾക്ക് തമ്പുരാൻ്റെ